പാലക്കാട് ജില്ലയുടെ സമ്പൽവൃദ്ധി പ്രധാനമായും നൽകുന്നത് നെൽക്കൃഷിയാണ് പാലക്കാട് ഏറ്റവും നല്ല രീതിയിൽ വിളയുന്ന കൃഷി എന്നു പറയുന്നത് നെല്ലാണ് നെല്ല് വ്യവസായം വളരെയേറേ വ്യാപുലമായും നടക്കുന്നു ഇന്നും ഇതിന് ഒരുപാട് പ്രാധ്യാനം പാലക്കാടിന്റെ സമ്പത്ത് വ്യവസ്ഥയിൽ ഉണ്ട് നെൽക്കൃഷി പണ്ട് മുതൽത്തന്നെ ചെയ്തുവരുന്ന ഒരുപാട് മന ഉള്ള പ്രദേശം ആയതിനാലും പാട ശേഖരം വളരെ ഏറെ ഉള്ളതിനാലും നെൽക്കൃഷി ഇവിടെ വളരെ സുഖപ്രദമായിത്തന്നെ നടത്തുന്നു അതുപോലെത്തന്നെ ഇപ്പോൾ ആധുനിക കാലത്തിന്റെ വളർച്ചയിലൂടെ പല ഇൻഡസ്ട്രികളും സിമന്റ് തുടങ്ങിയ പല ഇൻഡസ്ട്രികളും പാലക്കാടിനോട് ചേർന്ന് കഞ്ചിക്കോട് പോലുള്ള സ്ഥലങ്ങളിൽ കണ്ടുവരുന്നു ഇവയും വളരെ ഏറെ ആളുകൾക്ക് ഒരു സപ്പോർട്ട് നൽകുകയും ഒരുപാട് തൊഴിലവസരങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെ വന്നാലും കൃഷി എന്നുള്ളത് തന്നെയാണ് പാലക്കാട് ഉള്ള ഒരു വലിയ സാമ്പത്തിക അടിത്തറ നൽകുന്നത് നെൽക്കൃഷി ഇന്നും വളരെ സുലഭമായിത്തന്നെ നടത്തിക്കൊണ്ട് ഇരിക്കുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉല്പാദിപ്പിക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട് ഒരുപാട് നെല്ല് കൃഷിയും നെല്ലിനങ്ങളും ഇവിടെ നിന്നും ഉല്പാദിപ്പിച്ചു പല സ്ഥലങ്ങളിലേക്കും കയറ്റുമതിയും മറ്റും ചെയ്യുന്നുണ്ട് പാലക്കാടിന്റെ മണ്ണിൽ നെല്ല് നല്ല രീതിയിൽ വളരുന്നതു കൊണ്ടും ഒരുപാട് പാടശേഖരങ്ങളും ഉള്ളതു കൊണ്ടായിരിക്കാം പണ്ടുകാലം മുതൽ പാലക്കാടു ചെയ്തു പോരുന്ന കൃഷി നെല്ല് തന്നെയാണ്